എനിക്ക് പ്രിയങ്കരനായ മലയാള എഴുത്തുകാരൻ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറാണ് അദ്ദേഹം കേരളത്തിലെ വൈക്കത്തിലാണ് വൈക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രദേശം അവിടെ അദ്ദേഹത്തിനെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തും എഴുത്ത് രീതിയൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയാണ് നല്ല രീതിയിലാണ് അദ്ദേഹം കഥ എഴുതുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളുണ്ട് നോവലുകളുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രിയങ്കരനാകുന്നത്